ഹലോ ആ സെൻറ്റ് തോമസ് എച്ച് എസ് എസ്സിലെ പ്രിൻസിപ്പൽ ഐറി മേമല്ലേ ഞാൻ സെവൻ സീ ലെ സനേടെ അമ്മയാണ് ആ ഹലോ മേം തിരക്കാണോ ആ എനിക്ക് മോൾക്കാണെങ്കിൽ ഒരു നാല് ദിവസത്തെ ലീവ് വേണമായിരുന്നു ആ ഹസ്ബൻഡും ബ്രദറുവെല്ലാം ഗൾഫീന്ന് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ നാൾ മുമ്പേ തീരുമാനിച്ച് വെച്ചതാണ് ഒന്ന് ഒരു ട്രിപ്പ് പോവാൻ വേണ്ടീട്ട് നാല് ദിവസം ഒരു ലീവ് ആ പറയാം മേം ഇത് ആ ഞങ്ങൾ ഫാമിലി ഫുള്ളായിട്ട് പോവുവാണ് അപ്പം കൊച്ചിനെ മാത്രമായിട്ട് മാറ്റി നിർത്താനും പറ്റില്ല ഇവിടെ അങ്ങനെ അടുത്തൊന്നും നിർത്തീട്ട് പോവാനും പറ്റത്തില്ല ആ ആ ക്ലാസ് ടീച്ചറ് വിളിച്ചായിരുന്നു ആ കൊച്ചിന് ഇച്ചിരി പനിയും അങ്ങനെയൊക്കെയായിരുന്നു അതുകൊണ്ടാണ് പിന്നെ കലോത്സവത്തിൻ്റെ പ്രാക്ടീസും അങ്ങനെയൊക്കെയായപ്പോൾ ഒരുപാട് ക്ലാസൊക്ക മിസ്സായി അങ്ങനെയൊക്കെയാണ് ഇച്ചിരി ബേക്കിലോട്ടായത് എക്സാമിന് ആ ഞാൻ കുഴപ്പമില്ല നോട്ട്സ് ഇവിടടുത്തല്ലേ ജിനീടെ വീട് അപ്പം ഞാൻ ജിനീടേന്ന് വാങ്ങി എല്ലാം എഴുതി കംപ്ലീറ്റെ ചെയ്തോളാം അത് അത് ഓർത്ത് പേടിക്കേണ്ട അതൊക്കെ ഞാൻ എന്തേലും ചെയ്തോളാം മേം ഒരു നാല് ദിവസത്തേക്ക് ലീവ് വേണമായിരുന്നു ഞാൻ ഇനി വന്ന് മാമിനെ കാണേണ്ടതുണ്ടോ അതോ ക്ലാസ് ടീച്ചറ്നെ വിളിക്കണോ ഇതിന് വേണ്ടീട്ട്

ആ ഓക്കേ മേം ആ ആ എപ്പം വന്നാൽ കാണാൻ പറ്റുവായിരിക്കും ആ ഉച്ചയ്ക്ക് വന്നാൽ കാണാൻ പറ്റുവായിരിക്കോ

ആ ക്ലാസ് ടീച്ചറിനെ കണ്ടാൽ മതിയല്ലോല്ലേ ക്ലാസ് ടീച്ചറിനെ കണ്ടാൽ മതിയായിരിക്കുമോ ആ ഓക്കേ മേം ആ അപ്പോൾ വരുമ്പോൾ ലീവ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ വന്ന് പറയേണ്ടതുണ്ടോ ക്ലാസ് സ്കൂളിൽ വരണോ ലീവ് ലെറ്ററും കൊണ്ട് ഇനി എന്തേലും വരണോ

ആ ആ ആ ആ ഓക്കെ മേം ഓക്കേ ആ എന്താണ് ലീവെടുക്കുന്നതിനുള്ള കാരണം കൂടെ എഴുതണമല്ലേ ആ ഓക്കേ ഓ ആ അപ്പം നാളെ ഉച്ചയ്ക്ക് വന്നാൽ ക്ലാസ് ടീച്ചറിനെ കാണാൻ പറ്റുമായിരിക്കോല്ലോല്ലേ ആ ആ ആ ഓ ഓ ആ ആ ഓക്കേ ഓക്കേ ആ അപ്പം ശരി മേം ഞാൻ നാളെ എന്നാൽ ഒരു ഉച്ചയ്ക്ക് അങ്ങോട്ട് വരാം ആ എഴുതി കാണിക്കാം ആ ഒര് രണ്ട് മൂന്ന് ഞങ്ങൾ മൂന്നാറക്കെയാണ് പ്ലാൻ ചെയ്തു വച്ചേക്കുന്നത് ഒരു രണ്ട് ദിവസത്തെ ഇത് തരുമായിരിക്കോല്ലോല്ലേ നോട്ടൊക്കെ കംപ്ലീറ്റെ ചെയ്യാൻ വേണ്ടീട്ട് ആ ആ കാണിക്കാം കാണിക്കാം ഇല്ല ഇല്ല ആ ആ ഓക്കേ അപ്പോൾ താങ്ക് യൂ മേം